ഞങ്ങളുടെ ഇവിടെ ഒരു റേഡിയോ മീഡിയ വില്ലേജുണ്ട് അതുവഴിയാണ് ഞങ്ങൾ ഇവിടത്തെ പ്രാദേശിക കാര്യങ്ങളും വാർത്തകളും അവിടത്തെ ഓരോന്നും ഞങ്ങളറിയുന്നത് അതുവഴി ഇപ്പോള് രോഗികൾക്ക് സംഭാവനകൾ അങ്ങനെ കിഡ്നി രോഗികളുണ്ട് അവർക്ക് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ വേണം അവർക്ക് ഉടനെ അത് വഴി വിളിച്ചുപറഞ്ഞ് എല്ലാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാവരുംകൂടി ഒരുമിച്ച്ചേർന്ന് ഒന്നോ രണ്ടോ മണിക്കൂര് ബക്കറ്റ് പിരിവ് നടത്തി അവർക്ക് വേണ്ട ഒരു വീട്ടീന്ന് അഞ്ഞൂറ് ഒരു വീട്ടീന്ന് കൊടുക്കുക പറ്റുന്ന അത്രയും സംഭാവനകള് അഞ്ഞൂറോ ഇരുന്നൂറോ മുന്നൂറോ നൂറോ അതനുസരിച്ച് കൊടുത്ത് അവരെ ആ രോഗിക്ക് വേണ്ട പൈസ കൊടുക്കുകയും അവരുടെ അസുഖത്തിന് പിന്നെ ഓപ്പറേഷൻ എങ്കിൽ ഓപ്പറേഷന് അത് അതിന് കൊടുക്കാൻ ഡൊണേറ്റ് ഇപ്പോള് ഒരു കിഡ്നിയാണ് പോയതെങ്കിൽ അടുത്ത ആ കിഡ്നി അയാൾക്ക് കൊടുക്കാൻ ആവശ്യമുള്ള ഒരാളെ കൂടെ തപ്പിയെടുത്ത് അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒത്തിരി ഈ റേഡിയോ മീഡിയ വില്ലേജ് കൊണ്ട് ഇപ്പോള് ഈ നാട്ടില് നടക്കുന്ന ചെറിയ കാര്യങ്ങള് പോലും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറയുന്നു അപ്പോള് എല്ലാ മനുഷ്യരും ഈ സ്ഥലത്ത് ഈ സംസ് ഈ ഒരു പ്രാദേശിക ചുറ്റുപാടിനുള്ളില് എല്ലാ മനുഷ്യർക്കും അതേക്കുറിച്ച് അറിയാനും അവര് അവര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ ചെയ്യാനും നമുക്ക് സാധിക്കും ഒത്തിരീ ഒത്തിരിയേറെ നന്മകളാണ് ഞാന് മാധ്യമം വഴി ഇവിടെ നടക്കുന്നെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും രാവിലെ രാ ഒരൂ രാവിലെ തുടങ്ങും വൈകീട്ട് ഒരു പത്ത് പതിനൊന്ന് മണിവരെ നമ്മള് വെച്ചുകൊണ്ടിരുന്നാല് നമുക്കത് കേട്ടുകൊണ്ടിരിക്കാം അതിനകത്ത് നമുക്കോരോന്നും എല്ലാം എല്ലാ സ്ഥലത്തെയും ഈ സ്ഥലത്തെ ചുറ്റുപാടില് പിന്നെ വാ വാർത്തകളുണ്ട് ന്യൂസുകള് വരാറുണ്ട് അതുമെല്ലാം നമുക്ക് കേള്ക്കാം ഇനി അതിനകത്തുകൂടെ ഇവിടെ ഈ നാട്ടില് ചില സമയങ്ങളില് ഈ നാട്ടിലുള്ള ഇന്ന സ്ഥലത്ത് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് അതും അങ്ങനെ ഉള്ള തൊഴിൽ വാർത്തകളും പിന്നേ ഓരോ അവിടെ അപ്പോള് ഇന്ന സമയത്ത് ഇന്നത് പങ്കെടുക്കണം പിന്ന ഇത്ര നാളെ നമ്മള്ക്ക് പിന്നെ സാധനങ്ങള് കിട്ടാൻ റേഷൻ കട വഴി സമയമുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങള് കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ സമയത്ത് അതിൻ്റെ കാര്യങ്ങള് അതെല്ലാം ഒരു വാർത്തകൾ പോലെ നമ്മളെ അവര് ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കും നമുക്ക് വളരെയേറെ ഉപകാരമുള്ള ഒരിതാണ് റേഡിയോ മീഡിയ പിന്നെ മാധ്യമം പത്രങ്ങളും ഇവിടുത്തെ പ്രാദേശിക വാർത്തകളും അതുമിതുമെല്ലാം പത്രവായനയിലൂടെ മനസ്സിലാകും റേഡിയോയാണ് ഒന്നുകൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മള് നല്ലപോലെ കേൾക്കുകയും ചെയ്യും നമ്മളഅ കാണുന്നതിനേക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു കേൾക്കുന്നതായിരുന്നു പണ്ടത്തെ നമ്മുടെ തലമുറകളെ കേൾ കേൾവികേ ല്ല റേഡിയോ കൊണ്ടെവിടേലും പോയിരുന്ന് കേൾക്കുകയും അതനുസരിച്ച് കഴിഞ്ഞാല്മതി ഇപ്പോഴല്ലേ കാണുന്നത് പക്ഷെ കാണുന്നത് ദോഷമാണെന്നും കേൾക്കുന്നതാണ് നല്ലത് കേൾക്കുന്നതിനനുസരിച്ച് മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാക്കാന് കുറച്ച് പാടാണ് പക്ഷെ മനസ്സിലാക്കിയവരതിൽ നിന്നും മാറത്തുമില്ല കുഞ്ഞിലേതൊട്ടേ അങ്ങനെ ഒരു മീഡിയ ഉപയോ ഉപയോഗിച്ച് കേട്ടവര് ആ ഒരു ജീവിത രീതി തന്നെ പി ടും പിന്നെ വീട്ടിൽ നമ്മളെന്ത് വെച്ചാണോ ഇതുവല്ലതും ചെയ്ത് കേള്പ്പിച്ച് പിള്ളാര് അത് കേൾക്കുന്നുണ്ട് രാവിലെ വാർത്തകളും പാട്ടുകളും രാവിലെ മഴയാണ് സ്കൂളുകൾക്ക് അവധിയാണ് അങ്ങനുള്ള കാര്യങ്ങളും പിന്നെ അവരുടെ നമ്മുക്കിപ്പം രാവിലെ ഏത് വഴിയാണ് ഇന്നവഴി വഴി ബ്ലോക്കാണ് അതിലെ പോകാന് പറ്റത്തില്ല അങ്ങനുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കിത്തരാൻ അപ്പോള് ശരിക്കും പറഞ്ഞാൽ റേഡിയോ മീഡിയ വില്ലേജ് ഈ നാടിന് എല്ലാം കൊണ്ടും ഒരു ഗുണമാണെന്നാണ് എനിക്ക് പ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാല് അത്രയേറെ നന്മകൾ തന്ന ഒരു മാധ്യമം തന്നെയാണ് ഞങ്ങളുടെ നാടിന് ഏറ്റവും കൂടുതൽ ഉയർച്ചയും എല്ലാവർക്കും മനസ്സിലാക്കാനും എല്ലാം ചെയ്തു തരാനും നല്ല ഒരു സാഹചര്യം ഒരുക്കിത്തന്ന റേഡിയോ മീഡിയ വില്ലേജ് ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു നയൻറ്റി പോയിൻറ്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ്